മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോര് വല എന്ന് പറഞ്ഞോണ്ടൊരു സാധനം ഉണ്ട് ആ വല ഉപയോഗിച്ച് നമ്മള് മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ നല്ല മീനുള്ള സ്ഥലമൊക്കെ ആണെങ്കില് നമുക്ക് ഈ കോരുവല ഉപയോഗിച്ച് നന്നായിട്ട് മീൻ പിടിക്കാൻ സാധിക്കും എന്നാന്ന് പറഞ്ഞാല് ഇത് നമുക്കൊരു പിന്നെ അത് എന്തെങ്കിലും ഈ നല്ല കൂടുതലും മീനുകള് ഉള്ള ഒരു ഭാഗത്തൊരു കുഴിയിലോ ഒരു കുളത്തിലൊക്കെ ആണെങ്കില് നമുക്ക് അതിനകത്ത് ഇറങ്ങി നിന്നിട്ട് നമുക്കി കോരുവല ഉണ്ടെങ്കിലത് ഉപയോഗിച്ച് നന്നായിട്ട് കോരി എടുത്താൽ നല്ല മീൻ കിട്ടാൻ ഇത് അധികം ആൾക്കാർക്ക് അറിയാൻ മേലാത്തൊരു സാധ്യത ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കുളത്തിലൊക്കെ ആണെങ്കില് നമുക്ക് പോയി ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കോര് വലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നല്ല മീനുകളാണെങ്കിൽ നമുക്ക് കോരി കോരി എടുക്കാൻ സാധിക്കും എല്ലാവർക്കും നമുക്കിഷ്ടം പോലെ മീൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളാണ് ഈ കോരുവലയുടെ ഒരു പ്രത്യേകത നമ്മള് കോരിയെടുത്താൽ മതി അപ്പം നമുക്ക് ഇതേ ഇഷ്ടംപോലെ മീൻ കിട്ടും